നമ്മുടെ എഴുത്തിന് ഏറ്റവും കൂടുതൽ ആശയങ്ങള് കിട്ടുന്നത് നമ്മുടെ ഇമോഷൻസിൽ നിന്നാണ് കൃത്യമായി പറഞ്ഞാല് ഒരു എഴുത്തുകാരന് ഏറ്റവും കൂടുതല് എഴുതാന് കഴിയുന്നത് അവൻ്റെ ഫീലിംഗ്സ് ഫീലിംഗ്സ് അത് മനോഹരമായിട്ടായിരിക്കാം അത് ബാഡ് ആയിട്ടുള്ള ഇമോഷന് ആയിരിക്കാം അതുപോലെ രീതിയിലായിരിക്കാം എഴുത്തുകള് നമ്മുടെ ഇമോഷൻസ് എന്താണ് നല്ല ഒരു എഴുത്തും നമ്മുടെ ഇമോഷൻസ് നല്ല സാഹിത്യമായിട്ടുള്ള രീതിയിൽ വരുമ്പോഴാണ് മറ്റൊരു എഴുത്തായി തീരുന്നത് അവിടെ അതുപോലെ തന്നെ എന്താണ് പറയുക ആശയങ്ങളുണ്ടാക്കാൻ ഏറ്റവും കൂടുതലുള്ള തന്ത്രങ്ങളെന്ന് പറഞ്ഞാല് നമ്മള് ഫ്രീയായി നില്ക്കണമെന്നുതന്നെ നമ്മള് ഫ്രീയായി ഒരുപാട് ആലോചിക്കുക ചിന്തകള് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ആശയങ്ങളുണ്ടാക്കാനുള്ള ഏറ്റവും വലിയ തന്ത്രങ്ങള് അതുപോലെ തന്നെ എഴുത്തിനെ ഏറ്റവും കൂടുതല് പ്രചോദിപ്പിക്കുന്നത് എഴുത്ത് ഏറ്റവും കൂടുതൽ എഴുത്തിന് പ്രചോദനം നൽകുന്നത് പ്രകൃതി സമൂഹം സംസ്കാരം എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് പ്രകൃതിയാണ് പിന്നെ മറ്റൊന്ന് നമ്മുടെ സമൂഹമാണ് ആളുകൾ സംസ്കാരങ്ങളാണ് ഇത് മൊത്തത്തില് പറയുന്ന കാര്യങ്ങളാണ് വികാരങ്ങളെന്ന് പറഞ്ഞാൽ സർക്കാര് ഒരു വിഷയമായി തോന്നുന്നില്ല പ്രശ്നങ്ങളും സർക്കാറും വേണമെങ്കിൽ ഒരു വിഭാഗത്തില്പ്പെടുത്താം പ്രശ്നങ്ങളായാലും സന്തോഷങ്ങളായാലും എന്തായാലും വികാരങ്ങളല്ലെ പ്രകൃതിയുടെ മനോഹാരിത അതിനെ വർണ്ണിക്കാന് അതിനെ വർണ്ണിച്ചെഴുതാന് നമ്മുടെ ഒരുപാട് പ്രകൃതി സുന്ദരമായിട്ടുള്ളതാണെന്ന് നമുക്ക് പ്രത്യകിച്ചും ഉറപ്പുള്ള കാര്യമാണ് ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ അവസ്ഥകള് സമൂഹത്തിൻ്റെ അവസ്ഥകളെന്ന് പറഞ്ഞാല് സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥകള് അവരെക്കുറിച്ച് എഴുതാന് കഴിയും സംസ്കാരം സംസ്കാരം നമ്മുടെ നാടിൻ്റെ സംസ്കാരം മതേതരമായിട്ടുള്ള കാര്യങ്ങള് സഹവർത്തിത്തം യൂണിറ്റി ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എഴുതാന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ പ്രശ്നങ്ങളും വികാരങ്ങളും വികാരങ്ങളന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീലിങ്സ് ബാഡായിട്ടുള്ളതും ഹാപ്പിയായിട്ടുള്ളതും എല്ലാ നിലയ്ക്കുമുള്ള ഫീലിങ്സ് അതും എഴുതാനുള്ള നല്ലയൊരു വരികളാണ് എന്നാലും എഴുതാന് പ്രത്യേകിച്ച് ആശയങ്ങള് ആശയ ദാരിദ്ര്യം ഉണ്ടാകുന്നതിങ്ങനെ ഫീലിങ്സും വികാരങ്ങളും അതുപോലെ നമ്മുടെ കാഴ്ചകളും ഇതെല്ലാം ഇല്ലാതാകുമ്പോഴാണ് ഇതൊക്കെയുണ്ടാകുമ്പോള് പിന്നെ ആശയദാരിദ്ര്യം ഉണ്ടാവില്ല